നമ്മൾ ഒരു പാചക അതായത് പാചകത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് എണ്ണ തേങ്ങാ അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും ഇപ്പോൾ തേങ്ങ എന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാ ഉപയോഗിക്കാത്ത കറികളൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഒരു ചാറുകറി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ മിക്ക ചാറ് കറികൾക്കും തേങ്ങ തന്നെ വേണം ഇപ്പോൾ ഒരവിയൽ വെയ്ക്കണമെങ്കിൽ നല്ല തേങ്ങയും ഇഷ്ടം പോലെ തേങ്ങയും എണ്ണയും ഒക്കെ വെച്ചാലെ നല്ല ഒരവിയൽ വെക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ തേങ്ങക്കൊക്കെ നല്ല ചിലവ് വരും അതുപോലെ നമ്മളിപ്പോൾ ഈ ചായ കാപ്പി അങ്ങനെയൊക്കെ ഇടുമ്പോഴായിരിക്കും പഞ്ചസാരയുടെ ചിലവുകളൊക്കെ കൂടുതലായിട്ട് വരിക അപ്പോൾ ഈ പഞ്ചസാര പൊതുവേ നമ്മൾ കുറവാണ് കാര്യം ചായയും കാപ്പിയും നമ്മൾ കുറവാണ് അതുകൊണ്ടുതന്നെ പഞ്ചസാരയുടെ ഉപയോഗവും കുറവുതന്നെയാണ് പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നു പറയുന്നത് നോൺ വെജ്ജസിനാണ് മെയിനായിട്ട് നോൺ വെജ്ജസിൻ്റെ വാങ്ങിക്കുന്നതും കുറവായതു കൊണ്ട് തന്നെ അതിനും വലിയ ചിലവുകളൊന്നും അതായത് മീറ്റ് മസാല ഗരം മസാല ചിക്കൻ മസാല അതിനൊന്നും വലിയ ചിലവ് അങ്ങനെ ഉണ്ടാകാറില്ല അല്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കുന്നൊരു സാഹചര്യം എന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതിനൊക്കെയായിരിക്കും അതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുക അപ്പം മെയിനായിട്ട് ഒരു ചിലവായി അയ് പെട്ടെന്നു ചിലവാകുക എന്നു പറയുന്നത് ഈ തേങ്ങാ എണ്ണാ അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ്